യോഗ എന്നത് എപ്പോഴും മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു വ്യായാമം എന്നുതന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് വച്ചുകഴിഞ്ഞാൽ നമ്മുടെ മാനസികാരോഗ്യം അതോടൊപ്പം തന്നെ ശാരീരികാരോഗ്യത്തിനും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം വൻകിട വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്ന മുതിർന്ന ആൾക്കാർ അതുപോലെത്തന്നെ വീട്ടിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ എല്ലാം വളരെ അധികം മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു സമയമാണിപ്പോൾ ചിലപ്പോൾ അത് അവർ കഴിക്കുന്ന ഫുഡുകളിലൂടെ അല്ലെങ്കിൽ അവർ കാണുന്ന സാമൂഹിക മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ പ്രകൃതി ഇതെല്ലാംകൊണ്ട് ഓരോ നിമിഷവും വളരെ അധികം മാനസികമായി സംഘർഷങ്ങൾ ഏർപ്പെടുന്ന ഒരു തലമുറ നമുക്കുണ്ട് അപ്പം അവരുടെ മധ്യത്തിലൊക്കെ നമ്മൾ നോക്കാമെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെത്തന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ മാനസികാരോഗ്യം നമ്മൾ എടുത്ത് പറയാമെങ്കിൽ യോഗ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാരണം കാരണം നമ്മുടെ മനസ്സിനെ അറിയുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനെ അറിയുക ഒരു പ്രകൃതിയും നമ്മളും എങ്ങനെ ഈ സമൂഹത്തിൽ ഇടതൂർന്ന് ജീവിക്കാം നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇതെല്ലാം യോഗ നമ്മളെ പഠിപ്പിക്കുകയാണ് സോ എനിക്ക് ഈ യോഗ എന്ന് പറയുമ്പത്തേനും ഏറ്റവും കൂടുതൽ ഓർമ്മവരുന്നത് ഇതിൻ്റെ നന്മയേറിയ കുറേ വശങ്ങളാണ് ഇപ്പം നമ്മൾ കുഞ്ഞിലേ തന്നെ കുട്ടികൾക്ക് യോഗ നൽകുകയാണെങ്കിൽ കുഞ്ഞിലേ എന്ന് വച്ചാൽ അവർ സ്കൂളിൽ പോകുന്ന പ്രായം മുതൽ തന്നെ കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങളോട് അതായത് അവരുടെ ശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രികരിക്കുക അല്ലെങ്കിൽ രാവിലെ എണീറ്റ് കുറച്ചുനേരം നിശബ്ദമായി ഇരുന്ന് അവരുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കുക അങ്ങനെ നമ്മൾ കുഞ്ഞിലേ തൊട്ടേ കുട്ടികളെ നമുക്കൊന്ന് ഇതിലോട്ട് വേണ്ടി ഒന്ന് മെനെഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും അതിലൂടെ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് കുട്ടികളിലോട്ട് യോഗ നല്കാനായിട്ട് സാധിക്കും കാരണം ഓരോ ദിവസം പോവുംതോറും നമ്മൾ സമൂഹത്തിൽ വരുന്ന് വരുന്ന മാറ്റങ്ങൾ ആ കുഞ്ഞുങ്ങളേയും അതുപോലെത്തന്നെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞ് കുട്ടികളെയൊക്കെ യോഗ കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇപ്പം നമ്മുടെ ചില ഗവൺമെൻറ്റ് സ്കൂളുകളാകട്ടെ പ്രൈവറ്റ് സ്കൂളുകളാകട്ടെ അവർക്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ യോഗ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് അതായത് നമ്മുടെ വിദ്യാഭ്യാസം പഠനത്തിനപ്പുറം എന്ത് ആ ഒരു രീതിയിൽ യോഗയെ ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യോഗ ചെയ്യുന്നതിലൂടെ തന്നെ ഇപ്പം നമുക്കൊരു കുട്ടികൾക്ക് ഉള്ള ഒരു പഠനത്തിലുള്ള അവർക്ക് അതിൻ്റെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് യോഗ വളരെ അധികം സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ അവരിലുള്ള ഒരു ആത്മവിശ്വാസം കൂട്ടുക അല്ലെങ്കിൽ അവർ അവരെത്തന്നെ സ്നേഹിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന കുറേ നന്മകളാണ് അതുപോലെത്തന്നെ കുട്ടികൾ കുറേക്കൂടെ ശ്രദ്ധ ഒരു ശാന്തശീലരുള്ളവരാവും കാരണം അവർ അവരുടെ പ്രെസൻറ്റിനെയാണവർ ഏറ്റവും കൂടുതൽ അതായത് അവർ അപ്പോൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഒരു ചിന്തയെ എങ്ങനെ കുറച്ചുംകൂടി ശാന്തമായി കൈകാര്യം ചെയ്യാം എന്നുള്ള ഒരു കാര്യം യോഗ വഴി ആ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെത്തന്നെ ഇപ്പോൾ ഉള്ള കുട്ടികൾ നമ്മൾ കാണുന്നതാണ് അമിതമായ ഉൽക്കണ്ഠ അതിനെയെല്ലാം മാറ്റുവാനായി സാധിക്കും അവരുടെ ശരീരത്തിനെ അവർക്കുതന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അത് ഇപ്പം ശരീരത്തിനെയും മനസ്സിനേയും ഒരുപോലെ നിയന്ത്രിക്കുവാനായിട്ട് കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം സഹായിക്കുന്ന ഒരു വ്യായാമം തന്നെയാണ് യോഗ അതുപോലെത്തന്നെ വിഷാദരോഗം ഒക്കെ ഉള്ള കുറേപേർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുന്നുണ്ട് കാരണം ഇത്രയും ഇത് തിരക്കിട്ട് ഒരു ലോകത്ത് ആൾക്കാർക്ക് അവർ ഓരോരുത്തർ സംസാരിക്കുവാൻ ആളില്ലാത്ത ഒരു സമയം സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ കിട്ടുന്നത് നല്ലതാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു കോർപ്പറേറ്റ് യുഗത്തിലൊക്കെ നോക്കാമെങ്കിൽ നമുക്ക്

അമിതമായ ഉൽകണ്ഠ കുറയ്ക്കുക അപ്പം വിഷാദരോഗം കുറയ്ക്കാൻ അതുപോലെത്തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ശാരീരിക രോഗങ്ങൾ വരാതിരിക്കാനൊക്കെ വളരെയധികം നല്ലതാണ് യോഗ എന്ന് പറയുന്നത് അതിനുശേഷം ഓർമ്മശക്തി കൂട്ടുവാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിനൊക്കെ വളരെ അധികം സഹായിക്കും ഇത് യോഗ എന്ന് പറയുമ്പോൾ ഇതെന്ന് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസവും അത് നമുക്കുവേണ്ടി മാത്രമുള്ളതല്ല അത് പ്രകൃതി നമുക്ക് നൽകുന്നതാണ് നാം പ്രകൃതിക്ക് ചെയ്യുന്നത് ഏറ്റവും നമുക്കും വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആണെന്ന് ഓരോ നിമിഷവും നമ്മളെ പഠിപ്പിക്കുന്നത് ആണ് യോഗ എന്ന് പയുന്ന അതായത് നമ്മുടെ നമ്മുടെ പ്രകൃതിയോട് ഒരു ഇഴചേർന്ന് ജീവിക്കാൻ പറ്റുന്ന ഒരു വ്യായാമം തന്നെയാണ് നമുക്ക് യോഗ എന്ന് പറയുന്നത് അപ്പോൾ യോഗയുടെ ഇപ്പം യോഗക്ക് പലതരത്തിലുള്ള യോഗകളുണ്ട് അതിൻ്റെ അകത്തുതന്നെ നമ്മുടെ മീൻസ് കുറേ തരത്തിലുള്ള യോഗ പോസ്റ്റെർസ് ഉണ്ട് അപ്പം ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഓരോന്നും ഓരോ രീതിയിൽ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെ ക്രമീകരിക്കുവാനായിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഓരോ ചിന്തകളെ അത് അത് അനാവശ്യമായ ചിന്തകളെ മാറ്റിക്കൊണ്ട് ഒരു സമാധാനപരമായി ഒരു ഒരു ചുറ്റുപാട് നിർമ്മിച്ചെടുക്കുവാനായിട്ട് യോഗ സഹായിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഒരു ക്രമീകൃതമായൊരു ജീവിതം നയിക്കുവാനായിട്ട് ഒരു ആരോഗ്യത്തിൽ ശ്രദ്ധവച്ച് കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനോട് വളരെ അധികം ആത്മാർത്ഥതയോട് സ്നേഹിക്കുവാനായിട്ട് ഒക്കെ ഈ യോഗ സഹായിക്കുന്നുണ്ട് യോഗ ഓരോ മനുഷ്യൻ്റെയും സന്തോഷത്തിൽ വളരെ അധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടുതനെ ഇപ്പം നമ്മുടെ ചുറ്റുപാടും എത്ര വിഷമകരമായ ഒരു ഇതും നടക്കുകയാണെങ്കിൽ ഇതും കടന്ന് പോകും നമുക്ക് ഇനിയും ഇതിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന കൊറേ കുറച്ചുംകൂടെ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ആർജ്ജവം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ യോഗ എന്ന് പറയുന്നത് സോ ഇത് കുട്ടികളിലൂടെ നമ്മൾ കുട്ടികാലം മുതലേ കുട്ടികൾ അത് പറഞ്ഞുകൊടുക്കുകയും അവരതിനെ മുന്നോട്ട് അതിനെ വീണ്ടും വീണ്ടും യോഗ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാനുള്ള ഒരു ആർജ്ജവം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത്കൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ യോഗ തുടങ്ങുന്നത് ഏറ്റവും നല്ല കാര്യമാണ്